കോഴി ഇറച്ചി ഉൽപന്നങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിനായി സാധാരണ ഗതിയിൽ ഒരു ദിവസം പ്രായമുള്ള കോഴി കുഞ്ഞുങ്ങളെ നമ്മൾ കോഴി ഫാമുകളിലാണ് കൂടുതലായതും കൊടുക്കാറുള്ളത് ഈ കോഴി ഫാമുകളിൽ ഒരു ദിവസം പ്രായമായ കോഴി കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോൾ അവർ അതിനെ പത്ത് ദിവസം വരെ ഒരു ദിവസം പ്രായമായത് മുതൽ അതിനെ ഒന്നാമത്തെ ദിവസം മുതൽ പത്ത് ദിവസം വരെ ചൂട് കൊടുത്ത് അവയ്ക്ക് ചൂട് കൊടുത്ത് അവ ഇങ്ങനെ അട്ടി കിടക്കാതെ കൂട്ടം കൂടിയും അട്ടിയും കിടക്കാതെ അവയെ ഓരോ ശബ്ദമുണ്ടാക്കി അവയുടെ മേത്ത് ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ടിങ്ങനെ അടിച്ച് അടിച്ച് അവയ്ക്ക് വേദനിക്കാതെ അവയെ കൂട്ടം കൂടുന്നതിൽ നിന്ന് അവർ ഒഴിവാക്കി തനി തനിയെ മാറ്റി അവയെ നമ്മൾ ഓടിച്ച് ഓടിച്ച് ഓടിച്ച് ഒരു പത്ത് ദിവസം അതിന് വെള്ളവും തീറ്റയും വാക്സിനും വൈറ്റമിനും കൊടുത്തിട്ട് അത് ഇത്രേയും കാര്യങ്ങൾ കൃത്യമായി കൊടുത്ത് ശബ്ദമുണ്ടാക്കി അവയെ ഓടിച്ച് നമ്മൾ ഒരു പത്ത് ദിവസം അതിനെ നോക്കുക അതിനുശേഷം ഒരു മുപ്പത്ത് ദിവസം ആ മുപ്പത്ത് ദിവസം എന്ന് പറയുന്നത് മൊത്തം നാല്പത് ദിവസം വരും ഒരു കോഴി എറച്ചി കോഴിയായി മാറാൻ അപ്പം അതിന് ശേഷമുള്ള ആ മുപ്പത്ത് ദിവസം വെള്ളവും മറ്റേ തീറ്റയും കൃത്യമായി സമയാ സമയത്ത് കൊടുത്ത് ഒരു മുപ്പത്ത് ദിവസം അങ്ങനെയും നോക്കിയതിന് ശേഷം മൊത്തം നാല്പത് ദിവസം ആകുമ്പോൾ ആ കോഴികൾ എന്ന് പറയുന്നത് എറച്ചി കോഴികളായി മാറും ഇങ്ങനെ മാറുന്ന എറച്ചി കോഴികളെ ആണ് നമ്മൾ അറവുശാലകളിലേക്ക് അതായത് കച്ചവടക്കാർക്ക് കൊടുക്കാറ് കച്ചവടക്കാർക്കാണ് കോഴികളെ കൊടുക്കുന്നത് ഈ കച്ചവടക്കാർക്ക് കൊടുക്കുന്ന കൊടുക്കുക എന്ന് പറഞ്ഞാലും അവരെ ഈ ഫാമുകളിൽ നിന്നും പകൽ അല്ല രാത്രി കാലങ്ങളിലാണ് ഫാമുകളിൽ നിന്നും കോഴി കുഞ്ഞുങ്ങളെ അല്ല കോഴികളെ എറച്ചി കോഴിയായ ഈ നാല്പത് ദിവസം പാകമായ കോഴികളെ അവർ കൊണ്ടുപോകാറ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴികൾക്ക് ചൂട് അധികം സഹിക്കാൻ അവർക്ക് ചൂട് കൂടുതലായിരിക്കും അപ്പോൾ ചൂട് അധികം സഹിക്കാനുള്ള ഒരു ശേഷി അവർക്ക് ഇല്ലാത്തത് കൊണ്ട് ഈ ചൂട് അധികം അടുക്കുമ്പോൾ അവർ മരണപ്പെട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലായത് കൊണ്ട് ഇവരെ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിലാണ് ഈ കച്ചവടക്കാർ വന്നിട്ട് പിടിച്ചിട്ട് പോകാറുള്ളത് അവയെ വെയ്റ്റ് നോക്കി ഫാമുകളിൽ ഒക്കെ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് നോക്കിയിട്ട് അവയെ ഒരു എല്ലാത്തിനും കൂടെ വെയിറ്റ് എല്ലവയെയും എല്ലാത്തിനെയും ഒരുമിച്ചായിരിക്കും കൂടുതൽ പിടിക്കൽ ആ പിടിച്ച് വെയിറ്റ് നോക്കി അവയെ എന്തെയ്യും അവരുടെ ഒരു ബോക്സിനകത്ത് ആക്കിട്ട് ആ ബോക്സിന്നാണ് നമ്മൾ വെയിറ്റ് നോക്കിയിട്ട് എന്താ ചെയ്യുക അവയെ നമ്മൾ ഇറച്ചി കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ അവയെ ആ കച്ചവടക്കാരിലേക്ക് എത്തിക്കുന്നത് ഇങ്ങനെ എത്തിക്കുന്ന ഈ ഫാമുകളിൽ നിന്ന് കൃത്യമായി മരുന്നും അല്ല കൃത്യമായി വാക്സിനുകളും പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻസും ഭക്ഷണവും തീറ്റയും വെള്ളവും എല്ലാം കിട്ടി കൊ കിട്ടി നാല്പത് ദിവസം പാകമായിരിക്കുന്ന എറച്ചി കോഴികൾക്ക് നല്ല ആ ഒരു ഗുണനിലവാരവും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും അതുപോലെ തന്നെ ആ ഒരു നാല്പത് ദിവസമാണ് ഒരു കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രോയ്ലർ കോഴികൾക്ക് നാല്പത് ദിവസമാണ് ഏറ്റവും രുചി എന്താ പറയാ ഇറച്ചി കോഴികളുടെ ഇറച്ചിക്ക് ഏറ്റവും രുചി ഉള്ളത് എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് മുതൽ നാല്പത് ദിവസമായിരിക്കും ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ പിടിച്ച് കൊണ്ടു പോയി ആ അവയെ ആ ഒരു രീതിയിലേക്ക് മാറ്റുന്നത് ഈ ഇറച്ചി കോഴികളെ ഇങ്ങനെ കൊണ്ട് പോകുന്നത് ഇവരായിരിക്കും ആര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കച്ചവടക്കാആർ അതും രാത്രി കാലങ്ങളിൽ ആയിരിക്കും